ഇന്ത്യയുടെ കായിക വിദ്യാഭ്യാസത്തിൽ കണ്ണെനെന്ന് പറഞ്ഞൊരാൾ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് ഈ ഫുട്ബോള് കളിക്കാൻ നാഷണൽ നാഷണൽ കപ്പ് നേടിയിട്ടുണ്ട് അല്ലാതെ പിന്നെ പിന്നെ എന്താ ഫിഫെയിൽ കളിച്ചിങ്ങനെ കപ്പിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കപ്പുകളിങ്ങനെ നേടി കയ്യൊപ്പ് പതിപ്പിച്ചൊരാളാണ് ഇങ്ങനെ ഈ കണ്ണനെന്ന് പറഞ്ഞൊരാൾ എന്നുവെച്ചാൽ അയാളുടെ കയ്യൊപ്പ് ഇവിടെ ഇങ്ങനെ ഉണ്ട് അങ്ങനത്തൊരാളാണ് കണ്ണനെന്ന് പറഞ്ഞൊരാൾ മനസ്സിലായോ എന്നുവെച്ചാൽ അയാൾ അയാൾക്കറിയാം അയാൾ കളിക്കുന്ന രീതി അയാളുടെ ഒരിത് അയാൾ പതിപ്പിച്ച കയ്യൊപ്പ് അങ്ങനത്തെയൊരു കയ്യൊപ്പാണ് അതാണ് അയാളുടെ കയ്യൊപ്പങ്ങനെ അത് കണക്കിങ്ങനെ കടക്കുന്നത് എന്ന് വെച്ചാൽ ഇയാൾ ഞങ്ങളുടെ നാടിന് വേണ്ടി എന്തുവാ ഫുട്ബോള് ഫുട്ബോള് കളിക്കാൻ എന്തൊക്കെ ദൂരം വരെ സഞ്ചരിച്ചിട്ടുണ്ടെന്നറിയാമോ അയാൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് അങ്ങനത്തൊരു രീതിലുള്ളൊരു കഷ്ടപ്പാടാണ് അതാണ് ഫുട്ബോള് കളിച്ചയാൾ ഈ വീട്ടുകാരൊക്കെ ഇങ്ങനെ തള്ളിപ്പറയുകയാ ഇനി ഫുട്ബോള് കളിച്ചാൽ നീയെങ്ങനെ നന്നാവും നീ എങ്ങനെ എങ്ങനെയിരുന്നൊരാളാ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരൊക്കെ തള്ളിപ്പറയുന്നൊരവസ്ഥയായിരുന്നു അയാളുടെ പക്ഷേ അയാളുടെ കായിക വിനോദം ഇങ്ങനെ കയ്യൊപ്പിട്ട് കയ്യൊപ്പിട്ട് കയ്യൊപ്പിട്ട് നിന്നു